കേരളത്തിലെ വിദ്യാഭ്യാസ സമ്പ്രദായം അതായത് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെ എന്ന് ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുകയെന്ന് വച്ചാല് ഇപ്പം ഒന്നാമത് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പഠിക്കുന്ന കുട്ടികളുണ്ട് അപ്പ പ്ലസ്ടു വരെയൊക്കെ നമുക്ക് സ്കൂളുകളിൽ പിന്നെ ഗവൺമെൻറ് സ്കൂളൊക്കെ ആകുമ്പം വലിയ കുഴപ്പമിലാണ്ട് പഠിച്ചു പോകാൻ പറ്റും കാരണം വലിയ ഇപ്പം ഡൊണേഷൻ അങ്ങനെ ഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ കുറവായിരിക്കും പ്ലസ്ടു വരെ അതൊക്കെ ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലങ്ങളില് പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷങ്ങളിലാണ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം ഓരോ കുട്ടികൾക്കും അതായത് ചില കുട്ടികളൊക്കെ നല്ലോണം ഫുൾ എ പ്ലസ് ഓടെ പാസാകുന്ന കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ അവർക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ സാമ്പത്തിക അതായത് വീട്ടില് ചിലപ്പോൾ അച്ഛനും അമ്മയും കൂലിപ്പണി പോകുന്ന ചെലപ്പം ഇപ്പ അച്ഛൻ തളർന്നു കിടക്കുന്ന അമ്മ മാത്രം പണിയെടുത്ത് ചിലപ്പോൾ രണ്ടുപേർക്കും വയ്യാണ്ട് ഇരിക്കുന്ന അങ്ങനത്തെ ഒരുപാട് അവസ്ഥകളും കാര്യങ്ങളും വരുന്ന കുട്ടികളൊക്കെയുണ്ട് അപ്പം അവർക്കൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മതിയായിട്ടുള്ള ഫീസുകളും അടിക്കാൻ പറ്റാണ്ട് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരും അപ്പോൾ അതൊക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഗവൺമെൻറ് ഒക്കെ അതായത് അവരിലേക്ക് ഇറങ്ങിച്ചെന്ന് അതൊക്കെ ഇതാക്കിയിട്ട് അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ ഉന്നത വിദ്യാഭ്യാസത്തിന് കൊണ്ടുപോകുന്ന അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്